ആ ഹലോ ആ അതെ അതെ അതെ ഓ ബെന്ന് ഓക്കെ ആ അറിയാം അറിയാം അറിയാം അറിയാം ഫസ്റ്റ് ഇയർ അല്ലേ ആ ആ ആ അതെയതെ അതെ അതെ ഒഹോഹോഹോ അവനൊന്നും ഉഴപ്പുന്നൊന്നും ഇല്ല തോന കുറച്ച് ഈ വട്ടത്തെ സെമ്മിന് മാർക്ക് കുറഞ്ഞുപോയി

സോറി സാറേ റേഞ്ച് പോയി റേഞ്ച് പോയി ആ ഉണ്ട് ഉണ്ട് പറഞ്ഞോ ആ അത് കുഴപ്പം ഇല്ല അതായിട്ട് ഞാനത് നോക്കണോ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്നാ ഇപ്പോൾ ഒന്നും ഒന്നും കുഴപ്പം ഇല്ല ബട്ട് പറഞ്ഞാൽ അവന് സാധനങ്ങൾ മനസ്സിലാവും പിന്നെ ഭയങ്കര കഴിവ് അത് അപ്പം ഞാൻ പറഞ്ഞാൽ ഞാനത് മോശമായിട്ട് പറഞ്ഞതല്ല ഇനി അവന് വേറെയൊരു ഒഫ്കോഴ്സ് കൂടുൽ വേടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് അവന് പറ്റും തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രയുള്ളൂ പറഞ്ഞാൽ

പിന്നെ എൻ്റെ ഒരു അറിവിൽ അവന് എ സി സി എല്ലാം എന്നാ കുറച്ച് നോർമലാക്കൻ ഈ കുറച്ചുകൂടെ എന്നാ ബാക്കില ഇരിക്കുന്നത് ബട്ട് അവന് എനിക്ക് തോന്നുന്നു എന്താ അവന് കഴിവുണ്ട് പഠിക്കാൻ ഈ അവനാ ഈ ഇപ്പം പറഞ്ഞപോലെ പറഞ്ഞപോലെ കാരണം കുറച്ച് പാടിലായിരിക്കും എന്താ പെട്ടെന്നെല്ലാം പഠിക്കാൻ ആ അതെ അതെ എം എസ് എൽ ലീഗ്ൽ എല്ലാം ഞാൻ കേട്ടതാണ് ഇന്ന് ക്ലാസ്സെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അവൻ ആ അവനും കുറച്ച് വന്ന് കുറച്ച് അവൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടി എം എസ് എൽ ലീഗ്ലെല്ലാം പോയി ഞാന് കേട്ടത് അവൻ എന്ന നല്ല പൊസിഷൻ വരുത്തി ആ ഞാൻ ഇപ്പം പറഞ്ഞപോലെ അവൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പാരൻസായിട്ട് ബെന്നിനെ എന്താ എന്താ ഇങ്ങനെത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവീസ് പ്രമോട്ട് ചെയ്യൻ എൻ്റെ സോ എൻ്റെ സ്വന്തം മോനായിട്ട് ഞാൻ പറയുക ബെന്നിന് ഇങ്ങനെത്തെ സംഭവത്തിന് കുറച്ച് കഴിവ് ഉണ്ട് സോ അവനിങ്ങനെ പഠിത്തം മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഈ പറഞ്ഞപോലെ എന്താ ഫുട്ബോളും ഡ്രോയിങ്സും ഇങ്ങനെത്തെ ആണെങ്കിൽ പുഷി ചെയ്താൽ ചിലപ്പം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഓട്ടിസത്തിന് വേണ്ടി നീ കഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ അങ്ങനെ കുറെ ഇപ്പം ചെറിയ ആകുമായിരിക്കും എന്നാ ഈ പറഞ്ഞ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി ഇനി വല്ലം ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ തോന്നിയാലും എപ്പം വേണമെങ്കിലും വിളിച്ചോ ഞാൻ എപ്പോളും ഫ്രീ ആയിരിക്കും ഓക്കെ താങ്ക് യൂ